എന്റെ വീട്ടിൽ ടാപ്പ് വെള്ളം ലഭിക്കാറുണ്ട് അപ്പോൾ അത് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴും പലസ്ഥലങ്ങളിലും ടാപ്പ് വെള്ളം കിട്ടാതെ അല്ലെങ്കിൽ നിത്യേനെയുള്ള ആവശ്യങ്ങൾക്ക് വെള്ളം തികയാതെ വരുന്ന ഒരു ഒരു കൂട്ടം ആള്ക്കാർ ഇന്നും നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട് പുറം രാജ്യങ്ങളിൽ അത് എത്രത്തോളം വ്യാപകമാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ കേരളം അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങള് ഇതിൽ നിന്ന് നമ്മളെക്കാളും പിന്നിലാണ് അവർക്ക് വെള്ളത്തിന്റെ അളവ് വളരെയധികം കുറവാണ് നോര്ത്തിലേക്ക് ഒക്കെ പോയിക്കഴിഞ്ഞാൽ ബംഗാള് പോലെയുള്ള സ്ഥലങ്ങള് അവിടെ കുട്ടികളും മുതിർന്നവരും വെള്ളം കിട്ടാതെ പല കലങ്ങളിലും കുടങ്ങളിലും വെള്ളം നിറയ്ക്കാൻ ലോറികളിലും ടാങ്കറുകളും വന്നു നില്ക്കുമ്പോൾ ചെറിയ കുട്ടികളടക്കം മുതിർന്നവരും പ്രായമായവരും വരെ വെള്ളത്തിന് വേണ്ടി കുടങ്ങളും പലപാത്രങ്ങളും എടുത്ത് വരി നിൽക്കുന്ന ഒരു അവസ്ഥ പല ചിത്രങ്ങളിലും ന്യൂസുകളിലും പത്രങ്ങളിലും നമ്മൾ സജീവമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഭയങ്കര വേദനിപ്പിക്കുന്ന ഒരു സത്യമാണ് അതൊരു സത്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ നമ്മൾ വെള്ളത്തിന്റെ ഉപയോഗം കുറക്കണം അനാവശ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായിട്ട് നമ്മൾ വെള്ളം ഉപയോഗിക്കരുത് അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ അശ്രദ്ധ മൂലം കുറെ വെള്ളം പാഴായിപ്പോകുന്നുണ്ട് അങ്ങനെയൊന്നുള്ള നമ്മളുടെ അശ്രദ്ധ മൂലം വെള്ളം പാഴാവാൽ തടഞ്ഞു നിര്ത്തി കഴിഞ്ഞാൽ തന്നെ ഒരു വിധം നല്ലരീതിക്ക് നമുക്ക് വെള്ളം സേവ് ചെയ്യാൻ പറ്റും വെള്ളം നിലനിർത്താൻ പറ്റും നമ്മളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് വെള്ളം തികയാതെ തികയാത്ത പ്രശ്നങ്ങൾ അപ്പോൾ അതുമൂലം വരുന്ന ഓരോ നമ്മൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇതുമൊരി മാറ്റാന് പറ്റും ഇപ്പോൾ എന്റെ വീട്ടിലൊക്കെ ടാപ്പുവെള്ളം തന്നെയാണ് ലഭിക്കുന്നത് അതുകൊണ്ടന്നെ ഞങ്ങളുടെ നിത്യേനെയുള്ള ആവശ്യങ്ങൾ അതായത് പാത്രം കഴുകൽ പച്ചക്കറി കഴുകൽ അതുപോലെ തന്നെ വീട് വൃത്തിയാക്കുന്നത് പാത്രങ്ങൾ വൃത്തിയാക്കുന്നത് നമ്മൾ ഹോസ് വഴി പുറത്ത് വെള്ളം കൊണ്ട് വച്ച് ചെടികള്ക്ക് വെള്ളം നനക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങള്ക്കും ടാപ്പ് വാട്ടര് ലഭിക്കുന്നത് കൊണ്ടന്നെ വളരെയധികം ഉപയോഗം ഉപയോഗം ഉപകാരപ്രദമാണ് അങ്ങനെ കിട്ടാണ്ട് വരുന്ന കുളത്തില് നിന്നും മറ്റ് പുഴകളില് നിന്നും കുടിക്കാന് പോലും വെള്ളം ഇല്ലാണ്ട് വെള്ളം കോരി കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന അവസ്ഥ വളരെ വേദനാജനകമാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വെള്ളം സൂക്ഷിച്ചുപയോഗിക്കണം ഇപ്പോൾ ഗവൺമെന്റിന്റെ പല പദ്ധതികളും അതായത് ജപ്പാൻ കുടി വെള്ളം പോലെയുള്ള പദ്ധതികളും വളരെ ഉപയോഗപ്രദമാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജപ്പാൻ കുടിവെള്ളം സ്ഥാപിക്കുന്നതിനെ കൊണ്ട് നമ്മളുടെ ടാപ്പ് വാട്ടറില് വരുന്ന വെള്ളം ഉപയോഗിക്കാതെ അത് ഉപയോഗിച്ച് പബ്ലിക്കിന് ഉപയോഗപ്പെടുന്ന ഒരു രീതിയിലാണ് അത് നിര്മ്മിച്ചിട്ടുള്ളത് അപ്പോൾ സാധാരണ ആള്ക്കാര്ക്കും വെള്ളത്തിന് ക്ഷാമം വരുന്ന സ്ഥലങ്ങളിലെ ആള്ക്കാര്ക്കും ജപ്പാന് കുടിവെള്ളം പോലെയുള്ള പദ്ധതികൾ വളരെയധികം ഉപയോഗപ്രദമാണ് നമ്മൾ റോഡ് പണികൾക്കും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലെ ഓരോ ബിൽഡിങ്ങുകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ സ്ഥാപിക്കുമ്പോഴും അവിടത്തെ വര്ക്കിനുമൊക്കെ ആവശ്യത്തിനു വേണ്ടി ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്നും വെള്ളം ഉപയോഗിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ വെള്ളം ക്ഷാമം അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പല പ്രോജക്റ്റുകളും പദ്ധതികളും ഇനിയും നടപ്പിലാക്കാമെന്നത് വലിയൊരു ആഗ്രഹമാണ്